ഓണത്തോടനുബന്ധിച്ച് ബൈക്ക് റേസിങ് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബൈക്ക് റേസിങ് എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കുമ്പോക്കെ നമ്മള് സ്പീഡിൽ പോകുന്നുണ്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു നമ്മുടെ ബൈക്കിൻ്റെ ആ ഒരു പവറും ബൈക്ക് റേസിങ് എന്താ പറയുക നല്ലൊരു എക്സ്പിരിയൻസ് തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ നമ്മള് റോയൽ എൻഫീൽഡിൻ്റെ സംഘടനയുമായിട്ട് ചേർന്ന് ബൈക്ക് നമ്മുടെ എവിടെ പോയി ഇവിടെ മൂന്നാറ് പോയി മൂന്നാറ് പോയപ്പം വളരെ നല്ലൊരു എക്സ്പിരിയൻസായിരുന്നു ബൈക്കില് സ്ഥലങ്ങളെല്ലാം കാണുക എന്ന് പറയുമ്പോൾ മൂന്നാറ് നല്ലൊരു അനുഭവം തന്നെ ആയിരുന്നു ബൈക്കില് പോയത് ബൈക്കില് ഒരുപാട് ദൂരം റൈഡ് ചെയ്യുക പിന്നെ ഫുഡ് കഴിക്കുക ചായ കുടിക്കുക അങ്ങനെ ഒക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഡ്രൈവ് ചെയ്ത് പോവുക ഫ്രണ്ട്സുവായിട്ടൊക്കെ അത് വളരെ ഏറെ നല്ലൊരു എക്സ്പിരിയൻസ് തന്നെ ആയിരുന്നു നമ്മൾ പോകുമ്പോൾ തന്നെ ആൾക്കാർ നമ്മളെ നോക്കും ആ സ്പീഡിൽ സ്പീഡിൽ പോകുന്നത് അതല്ല നമ്മള് സ്ഥലങ്ങളെല്ലാം കണ്ട് അതിൻ്റെതായ രീതിയില് ഒരു പക്വതയോട് കൂടി പോകുമ്പോൾ ഒരു നല്ലൊരു കാര്യം തന്നെ ആയിരുന്നു റേസിങ് റേസ് എന്ന് പറയുമ്പോൾ നല്ല സ്പീഡിൽ പോവുക അപ്പോൾ സ്പീഡിൽ പോകുമ്പം അതിനോട് വലിയ താൽപര്യം ഇല്ല ഇപ്പം സ്ഥലങ്ങളെല്ലാം കണ്ട് അതിൻ്റെതായ രീതിയില് മുന്നോട്ട് പോകാൻ പോകാൻ വളരെ ഏറെ നല്ലൊരു ഇത് തന്നെ ആയിരുന്നു റേസിങ് മുന്നോട്ട് പോവാൻ പോവുന്നത് പിന്നെ അത്പോലെ മൂന്നാറ് പോയപ്പം വളരെ വളരെ നല്ലൊരു എക്സ്പിരിയൻസ് ആയിരുന്നു ബുള്ളറ്റിൽ പോവുന്ന റേസില് നമ്മള് റേസിങ്ങിൽ പങ്കെടുക്കുമ്പം ആ ഒരു സ്പീഡ് മത്സരം അല്ല മറ്റേത് മത്സരം നമ്മള് ആസ്വദിച്ച് പോവുകയായിരുന്നു യാത്ര യാത്ര ആസ്വദിച്ചു പോകുവായിരുന്നു അതായിരുന്നു ഇഷ്ടം റേസിൽ പങ്കെടുക്കുമ്പോൾ നമ്മള് മത്സരത്തിന് വേണ്ടി പങ്കെടുക്കുമ്പോൾ നമുക്കൊരു സ്പീഡ് നമ്മള് മുമ്പിലെത്തുക എന്നുള്ളതാണ് അപ്പഴത്തെ ലക്ഷ്യം എല്ലാവരെയും കടത്തി വെട്ടി മുന്നോട്ട് പോവുക മുന്നിലെത്തുക റേസിങ് അത്രക്ക് സ്പീഡിലാണ് അപകടങ്ങള് ഒരുപാട് സംഭവിക്കുന്നതാണ് ഈ റേസിങ്ങിൽ അത്കൊണ്ട് പിള്ളേരാണെങ്കിലും ഈ ചെറിയ തിരക്കുകളില്ലാത്ത വഴികളിൽ വച്ച് ബൈറ് ബൈക്ക് റേസിങ് നടത്തുന്നത് അത് ഭയങ്കര അപകടകരമായിട്ടുള്ള പരുപാടിയാണ് അങ്ങനെ ചെയ്യുന്നത് പിള്ളേര് ആ പക്വത ഇല്ലാത്ത പിള്ളേര് ലൈസൻസില്ലാത്ത പിള്ളേർ അങ്ങനെ റേസിങ്ങില് പങ്കെടുക്കുമ്പോൾ അപകടങ്ങൾ സൃഷ്ടിക്കാതെ റേസിങ്ങിൽ പങ്കെടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് നമ്മള് മുന്നോട്ടുള്ള യാത്രയിലും അങ്ങോട്ട് സഞ്ചരിക്കും റേസിങ്ങിലൊക്കെ പങ്കെടുക്കുമ്പം അപകടങ്ങളില്ലാതെ ആർക്കും അങ്ങോട്ടൊരപകടവും സൃഷ്ടിക്കാതെ ഇങ്ങോട്ടു ഒരപകടവും വരുത്താതെ മുന്നോട്ട് പോവുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്പോലെ

നല്ലൊരു അനുഭവമായിരുന്നു ബൈക്ക് റൈസിങ്ങില് എനിക്ക് കിട്ടിയത് ബൈക്ക് റൈസിങ്ങല്ല ട്രാവലിങ്ങ് സംഘടിച്ച് നമ്മള് ബൈക്കിൽ യാത്ര ചെയ്യുക അത് തന്നെ ആയിരുന്നു ഏറ്റവും വലിയ അനുഭവം നല്ലൊരു എക്സ്പിരിയൻസായിരുന്നു മൂന്നാറ് പോയതും അവിട ബൈക്കില് പോയി ആ മലനിരകളില് കയറി ആ ബൈക്കില് പോവുന്നതും വളരെ ഏറെ നല്ലൊരു എക്സ്പിരിയൻസ് തന്നെയായിരുന്നു മുന്നോട്ട് പോയത് ഇനി ഈ അവസരങ്ങള് കിട്ടുവാണെങ്കില് ഇനിയും സംഘടിതമായിട്ട് കൂട്ടുകാരുമായിട്ടും ഒരുമിച്ച് യാത്രകള് പോകാനും വളരെയേറെ താല്പര്യം തന്നെയാണ് ഉള്ളത് അത് നല്ല അനുഭവം തന്നെയായിരുന്നു ഫ്രണ്ട്സും ആയിട്ട് ഒരുമിച്ച് യാത്ര പോയി ഇനി പോകുവാണെങ്കില് കുറച്ചും കൂടെ ദൂരെ എന്താ പറയുക ജമ്മു കാശ്മീർ അങ്ങോട്ടൊക്കെ പോകുവാണെങ്കിൽ വളരെ നല്ലൊരു എക്സ്പിരിയൻസ് ആയിരിക്കും